ഇന്ത്യൻ ഭക്ഷണമെന്നു പറഞ്ഞാൽ പ്രധാനമായും കുറച്ചു എരിവേറിയതാണ് പിന്നെ കൂടാതെ മസാലകളുടെ ഒരു അതിപ്രസരം തന്നെ ഈ മസാലകളിൽ കണ്ടുവരുന്നുണ്ട് ഇന്ത്യൻ ഭക്ഷണം വളരെ എരിവേറിയതും എന്നാൽ ജനപ്രീതിയേറിയതുവാണ് അമേരിക്കയിലും മറ്റുള്ള രാജ്യങ്ങളും ഇന്ത്യൻ ഫുഡ് ആഗ്രഹിച്ചു തന്നെ ഇന്ത്യ സന്ദർശിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് ഇത് പ്രധാനമായിട്ടും ഇന്ത്യയുടെ ഫുഡെന്ന് പറയുന്നത് ധാന്യമാണ് പ്രധാനമായിട്ടും അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് അതായത് ഉത്തരേന്ത്യയിലേക്കോ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലേക്കോ വരുമ്പോൾ രണ്ടും രണ്ട് കൾച്ചറാണുള്ളത് ഒരു സ്ഥലത്ത് അരി പ്രധാനമായി ആഹാരത്തിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു ഭാഗത്ത് ഗോതമ്പാണ് പ്രധാനമായും ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നത് അപൂർവ്വം ചിലയിടങ്ങളിൽ ബാർലി ഉപയോഗിക്കുന്ന ആളുകളുണ്ട് ചില ഉൾപ്രദേശങ്ങളില് ഇന്ത്യയുടെ ചില ഉൾപ്രദേശങ്ങളിൽ ഭക്ഷണം വളരെ കാടുമായിട്ട് ബന്ധപ്പെടുത്തി ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട് ഇത്തരം ആളുകൾ ഇത് ഇന്ത്യയിൽ നിയമംമൂലം നിരോധിച്ചതാണെങ്കിലും വേട്ടയാടി ഭക്ഷണം കഴിക്കുന്നവരും ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലുണ്ട് ഇപ്പോഴും നിലവിലുണ്ട് പ്രധാനമായും ഇന്ത്യയിൽ മസാലയെന്നു പറയുന്നത് ഒരു പ്രധാനമായും എരിവ് എന്ന് പറഞ്ഞൊരു ടേസ്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളത് തന്നെയാണ് പിന്നെ പിന്നെ എല്ലാവർക്കും ഈ ഇന്ത്യൻ ഫുഡ് പ്രത്യേകിച്ച് വിദേശികൾക്കെല്ലാവർക്കും ഇന്ത്യൻ ഫുഡ് അങ്ങനെ കഴിക്കാൻ പറ്റണമെന്നില്ല കാരണം എല്ലാവർക്കും ഈ എരിവ് താങ്ങാനായിട്ടുള്ളൊരു കപ്പാസിറ്റി ഉണ്ടായിക്കൊള്ളണമെന്നില്ല പിന്നെ ജനപ്രിയ വിഭവങ്ങളെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പ്രധാനമായിട്ടും നാൻ കഴിക്കുന്ന ആളുകളുണ്ട് അതുപോലെതന്നെ തന്തൂരി ചിക്കൻ ഐറ്റംസ് വളരെ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് ഇന്ത്യ ചിക്കൻ ഐറ്റംസിൽ തന്തൂരിയായിട്ടും ചിക്കൻ ഫ്രൈ ആയിട്ടും ചില്ലി ചിക്കനായിട്ടും ഒക്കെ ഇന്ത്യൻ ഫുഡിൽ വരുന്നുണ്ട് പിന്നെ ഇതുപോലെതന്നെ ഫുഡ് ഐറ്റംസില്ത്തന്നെ കടായി ചിക്കനെന്ന് പറഞ്ഞ സാധനം അതുപോലെതന്നെ ഗോപി മഞ്ചൂരിയനെന്ന് പറഞ്ഞൊരു ഐറ്റം ഒക്കെ പ്രധാനമായിട്ടുള്ള ഇന്ത്യൻ ഫുഡാണ് ചപ്പാത്തി പ്രധാനമായിട്ടും നോർത്ത് ഇന്ത്യൻസ് വളരെയധികം യൂസ് ചെയ്യുന്നൊരു ഭക്ഷണപദാർത്ഥമാണ് അതേസമയത്ത് കേരളം തമിഴ്നാട് കർണാടക സ്ഥലങ്ങളില് കൂടുതലായിട്ടും അരിയാണ് പ്രധാനമായിട്ടും ആഹാരത്തിനായിട്ട് ഉപയോഗിക്കുന്നത് എന്നാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ പ്രധാനമായും ചപ്പാത്തി അല്ലെങ്കിൽ ഗോതമ്പ് ഉപയോഗിച്ചിട്ടുള്ള മറ്റ് കാര്യങ്ങളാണ് കണ്ടുവരുന്നത് ഫാസ്റ്റ് ഫുഡ് കൾച്ചർ ഇന്ത്യയിലങ്ങനെ പ്രധാനമായിട്ടില്ല പക്ഷേ എന്നിരുന്നാലും ഇപ്പോഴത്തെ കെ എഫ് സി മെക് ഡോണാൾസ് പോലെയുള്ള കമ്പനികളുടെ ഫ്രാഞ്ചൈസികൾ ഇന്ത്യയിൽ ഒട്ടനവധിയുള്ളതിനാൽ ഒരുപാട് അങ്ങനെയുള്ള കാര്യങ്ങളും വന്നിട്ടുണ്ട് എന്നാലും പിന്നെയുള്ളൊരു ഇന്ത്യക്കാരുടെ ചായ ചായ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ദേശീയ പാനീയം പോലെയൊരു വസ്തുവാണ് ഒഴിച്ചുകൂടാനാകാത്തതാണ് അത് കേരളത്തിൽ ഇങ്ങ് കന്യാകുമാരി തൊട്ട് ജമ്മുകാശ്മീർ വരെയുള്ള എല്ലാവരും അത്യാവശ്യം എല്ലാവരും തന്നെ ചായയുമായിട്ട് ഒരു അഡിക്ഷൻ ഉള്ളവരായിരിക്കും ചായ പിന്നെ കുറച്ച് തണുപ്പേറിയ പ്രദേശങ്ങൾ പ്രധാനമായിട്ട് കേരളത്തിൻ്റെ തണുപ്പേറിയ പ്രദേശങ്ങളിൽ കാപ്പി ഒരു സൈഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ദൈനംദിന ഭക്ഷണം ജീവിതത്തിൽ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രധാനമായിട്ടും ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ പല ഫുഡാണ് ഇപ്പോള് കേരളത്തില്ത്തന്നെ തെക്കൻ കേരളത്തിലും അതുപോലെതന്നെ ഉത്തര കേരളത്തിലുമൊക്കെ മധ്യകേരളത്തിലുമൊക്കെ വ്യത്യാസമുണ്ട് കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ എന്താണ് പറയുക തിരുവനന്തപുരത്തുകാരുടെ ഒരു സ്റ്റൈലായിരിക്കില്ല ഒരിക്കലും മലബാറുകാരുടേത് കാരണം മലബാറുകാരെന്ന് പറഞ്ഞാല് ഇപ്പോള് പ്രത്യേകിച്ചൊരു മുസ്ലിം അധിനിവേശ ഏരിയയാണ് പ്രധാനമായിട്ടും മലബാർ എന്ന് പറയുന്നത് അപ്പം മലപ്പുറം മുതൽ മുകളിലേക്ക് വരുമ്പോള് സ്വാഭാവികമായിട്ടും ബിരിയാണി അതല്ലെങ്കില് നെയ്ച്ചോറ് ചിക്കൻ അല്ലെങ്കിൽ മട്ടൻ അങ്ങനത്തെ സാധനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഒരു കൾച്ചർ നിലനിന്നുവരുന്നുണ്ട് നോൺ വെജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൾച്ചർ നിലനിന്നുവരുന്നുണ്ട് എന്നാൽ സ്വൽപ്പം താഴേക്ക് പോയി കോട്ടയം ആലപ്പുഴ ആ ഒരു സൈഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും കണ്ടുവരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള മീറ്റുകളുടെ ആ ഇത് ഉണ്ടെങ്കില്കൂടിയും അതായത് പോർക്ക് ഒക്കെ ഉണ്ടെങ്കിൽകൂടിയും പ്രധാനമായിട്ടും കണ്ടുവരുന്നൊരു ഫുഡ് എന്നുപറഞ്ഞാല് ബീഫാണ് കോട്ടയം മേഖലകളിൽ ബീഫ് അവരുടെ പ്രത്യേകത ബീഫും പിന്നെ അതുപോലെ തന്നെ മീനുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു ഏരിയ തന്നെയാണ് അപ്പോള് ഇതിൽ തന്നെ കണ്ണൂരെന്നു പറഞ്ഞ സ്ഥലങ്ങളിൽ പോയിക്കഴിഞ്ഞാല് ഒരു പ്രത്യേക എന്താണ് പറയുക കടലുമായിട്ട് ബന്ധപ്പെട്ട് ചെമ്മീൻ കെട്ടുകളും ചെമ്മീൻ അതുപോലെതന്നെ ആലപ്പുഴ സൈഡിലും ഇതുപോലെ ചെമ്മീൻ കെട്ടുകളുണ്ട് അങ്ങനെ പല കേരളത്തില്ത്തന്നെ നാനാതരത്തിലുള്ള ഭക്ഷണവൈവിധ്യങ്ങളും നിലനിന്നുവരുന്നുണ്ട്